ആരോഗ്യ സംരക്ഷണം ഗതാഗതം വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന ഗ്രാമപ്രദേശത്തിലെല്ലാം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്ത് ഒന്നും മുൻപ് സ്കൂൾ ഇല്ലായിരുന്നു വിദ്യാഭ്യാസത്തിന് കുറച്ച് ദൂരെ പോകണം പക്ഷേ ഇന്ന് സ്കൂളായാലും കോളേജുകളായാലും എല്ലാം നമ്മളുടെ ഗ്രാമം അല്ലെങ്കിൽ ഗ്രാമത്തിനടുത്ത് തന്നെ ഉണ്ട് അത് എല്ലാം ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നത് പിന്നെ ഗതാഗതം ഗതാഗതം ഇന്നെല്ലാ ചെറിയ വഴികളും അത് റോഡാക്കി ഗതാഗത ഗതാഗതത്തിനുള്ള സൗകര്യമാക്കി മാറ്റിയിട്ടുണ്ട് ഒരു ഓട്ടോ എങ്കിലും പോകേണ്ടി ഒരു വഴി എല്ലാ വീടുകളിലും ഉണ്ട് ഇട ഇടവഴികളൊന്നും ഇന്നില്ല കാരണം നമ്മൾ ഞാൻ നിൽക്കുന്ന പ്രദേശത്തെല്ലാം അങ്ങനെയാണുള്ളത് പിന്നെ ആരോഗ്യസംരക്ഷണം നമുക്ക് ആശുപത്രികളിലും ഗവൺമെന്റ് അശുപത്രകളിൽ ഡോക്ടർമാരുണ്ട് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് രോഗങ്ങൾ കണ്ടു പിടിക്കാനുള്ള അത് അതെല്ലാം നല്ലൊരു സർക്കാരിൻ്റെ നല്ലൊരു നയമായിട്ട് കരുതുന്നു